ഞാന് ബൈക്കുപയോഗിക്കുന്നത് വര്ഷങ്ങളായിട്ടു ബൈക്കുപയോഗിക്കുന്ന ഒരാളാണ് ഏകദേശം ഒരു പത്ത് ഇരുപത് വര്ഷത്തിന് മുകളിലായി ബൈക്കുപയോഗിക്കാന് തുടങ്ങിട്ടൊക്കെ പക്ഷേ ഞാനതിന്റെ ബൈക്കിനെ വളരെ കാര്യാ ആ വ ആ വാഹനത്തിനെ വളരെ വൃത്തിയായിട്ട് തന്നെ ആണ് ഞാന് കൈകാര്യം ചെയ്യുന്നത് അതിന്റെറെ ഓയില് അല്ലെ അതിന്റെ ബാറ്റ്റി അതിന്റെ ലൈറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് ഇങ്ങനുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടയറ് അതിന്റെ ത്ന്റെ സീറ്റ് കാര്യങ്ങൾ എല്ലാം വളരെ ഇതായിട്ട് ചെക്ക് ചെയ്ത് നമ്മൾ അതിൽ അഴുക്കോ കാര്യങ്ങളോ നമ്മൾ കയറിയിരിക്കുമ്പളൊ അതിൽ സീറ്റിൽ അഴുക്കുണ്ടോ അത് അല്ലെങ്കിൽ ചില സമയങ്ങളില് പക്ഷികൾ ഇങ്ങനെ കൊണ്ടന്നേച്ച് ഏതെങ്കിലും മരത്തിന്റെ അടിയിൽ വെച്ചിട്ട് പോവും വെച്ച് കഴിയുമ്പം പക്ഷികൾ വൃത്തിഹീനമാക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് നമ്മൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില സ്ഥലങ്ങളില് നമുക്ക് വെള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല ഒരു പേപ്പറ് പോലും അതിന് സേഫ്റ്റി ആയിട്ട് അതിന് വേണ്ടിയുള്ള കോട്ടണ് വെയ്സ്റ്റ് നമ്മൾ എടുത്തു വെക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് പിന്നെ ബൈക്കിനെ സംബന്ധിച്ചോളം പറയാണെങ്കിൽ നമ്മൾ നൂറുശതമാനോം ബൈക്കൊക്കെ ആണേ ഇരുചക്ര വാഹനം ആയതു കൊണ്ട് വളരെ സെ ന്നെ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാനായിട്ട് ദീർഘ ദീര്ഘ ദൂര യാത്രകളില് നമ്മൾ വളരെ വളരെ സ്പീഡീ പോവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല വളരെ സ്ലോയിലും വളരെ കെയര് ആയിട്ടെ നമ്മൾ അത് ദീര്ഘ ദൂര യാത്ര ചെയ്യാവുള്ളൂ ദീര്ഘ ദൂര യാത്രയില് ബൈക്കിനെ സംബന്ധിച്ചോളം പറയാണെങ്കില് മ്മ നമുക്ക് ടയേഡ് ആകുന്ന ഒരന്തരീക്ഷമാണ് പല ഗട്ടറുകളും പല വിവിധ രീതിയിലുള്ള ഇതും ഒക്കെ കാണുന്നോരു ഇതാവുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ദീര്ഘ ബൈക്ക് യാത്ര എന്നാൽ ഇടക്ക് ഇടക്ക് വല്ല ഭക്ഷണം കഴിക്കാനും മറ്റും ഏറ്റോം നല്ല ശു സുഖയാത്രയ്ക്കും ഇത് നല്ലതാണ്